പാട്ടു പാടാൻ തുടങ്ങുന്നവർ എപ്പോഴും പതിയെ ചെറിയ പിച്ചിലെടുത്ത് പാട്ട് പാടാനായിട്ട് തുടങ്ങണം നമ്മൾ ഒരിക്കലും പച്ച വെള്ളം തണുത്ത വെള്ളം കുടിക്കുകയോ തണുത്ത വെള്ളം കുടിക്കരുത് തണുത്ത വെള്ളം കുടിക്കും നമ്മുടെ ഒച്ച അടഞ്ഞു പോകാനും അതുപോലെ തന്നെ അത് പിന്നെ നമുക്ക് പാടാനായിട്ട് വളരെ വൈബ്രേഷൻ സൗണ്ടുകൾ വരും വൈബ്രേഷൻ സൗണ്ടൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പച്ചവെള്ളം കുടിക്കാതെ എപ്പോഴും ചെറു ചൂട് വെള്ളം നല്ലതാണ് അതുപോലെ തന്നെ ചുക്ക് ഇഞ്ചി ഒക്കെ ഇട്ട് തെളപ്പിച്ചൊള്ള വെള്ളം കുടിക്കുന്ന വളരെ നല്ലതാണ് പിന്നെ സാധകം ചെയ്യുന്നത് പ്രയോജനപ്പെടുത്തും മറ്റു അതു പോലെ തന്നെ വൻ ചെറിയ ചെറിയ പാട്ടുകൾ എളുപ്പമുള്ള പാട്ടുകൾ ആദ്യം ആദ്യം പാടി പാടി പഠിച്ചിട്ട് വേണം നമ്മൾ വലിയ ബുദ്ധിമുട്ടുള്ള പാട്ടുകൾ പാടാനായിട്ട് ആദ്യം ആ പാട്ട് പാടാനുള്ള കഴിവ് നമുക്ക് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ മൂളി പാട്ടുകളൊക്കെ പാടി പതിയെ പതിയെ പാടി തുടങ്ങിയ മാത്രമേ നമുക്ക് അത് പാടാനായിട്ട് സാധിക്കുകയുള്ളൂ അത് പാട്ട് പാടാൻ തുടങ്ങുന്നവർ അതാണ് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ നമ്മളുടെ ഉള്ളിലെ കഴിവ് പതിയെ പതിയെ പുറത്തെടുത്ത് അത് ചെറിയ രീതിയിലുള്ള പാട്ടുകളൊക്ക പാടി പാടി പഠിച്ചിട്ടാണ് നമുക്ക് മുന്നോട്ട് കൊണ്ട് പോകാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ പിന്നെ പാടാൻ ബുദ്ധിമുട്ടുള്ളവർ അത് പിന്നെ ഈ കൽക്കണ്ടം ഒക്കെ തിന്നുന്നത് വളരെ നല്ലതാണ് കൽക്കണ്ടം ഒക്കെ തിന്നുമ്പം നമ്മുടെ ഒച്ചക്കൊക്കെ നല്ല ഒരു തൊണ്ടാവും അതിനാണ് കൽക്കണ്ടം ഒക്കെ ഉപയോഗിക്കുക ഒച്ച അടപ്പ് ഒണ്ടാകാതെ ഇരിക്കാനും കാറൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ വളരെ നല്ലതാണ് പിന്നെ തണുത്ത വെള്ളത്തിൽ കുളിക്കാതിരിക്കുക തണുത്ത വെള്ളത്തിൽ വെളിപ്പിനെ എഴുന്നേറ്റ് തണുത്ത വെള്ളത്തിൽ കുളിച്ചു കഴിയുമ്പോൾ ചിലർകൊ ക്കെ ഒച്ചയടപ്പിന് കാരണവാകും നമ്മൾ നല്ലോണം പാടി പഠിച്ച് കഴിഞ്ഞിട്ടാണെന്ന് പറഞ്ഞാലും അത് തണുത്ത വെള്ളത്തിലോ കണ്ടേ കാറ്റ് അടിക്കക്യോകുക ഒക്കെ ചെയ്യാതിരി പാട്ട് പാടുന്ന സമയത്ത് നമ്മൾ ഏപ്പോഴും അത് ശ്രദ്ധിക്കേണ്ടതാണ് നമുക്ക് ഒരു തരത്തിലും പിന്ന സൗണ്ടിന് വൈബ്രേഷൻ ഉണ്ടാകാതെ ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൽ അത് ചെയ്യുന്നത്